ഞാൻ വാങ്ങിച്ചത് വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മെഷീൻ്റെ ഉപകാരം എന്താണെന്നു വച്ചാൽ നമുക്ക് അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ആണ് വാഷിംഗ് മെഷീൻ ഇപ്പം നമ്മൾ ഇപ്പം അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഡ്രസ്സ് അങ്ങ് ഊരി ഇട്ടുകൊടുക്കും അമ്മ അലക്കേണ്ടി വരും അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ആകണ്ടായെന്നു വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തത് വാഷിംഗ് മെഷീൻ അപ്പം വാഷിംഗ് മെഷീനിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അലക്കൽ തന്നെ ആണ് പിന്ന അത് നമ്മൾക്ക് കൈ കൊണ്ട് പിഴിയാൻ ഒക്കെ ബുദ്ധിമുട്ട് ആണെങ്കിൽ അതിനകത്തു തന്നെ ഡ്രയിൻ ചെയ്ത് എടുക്കാൻ ഉള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ അത്യാവശ്യം വെളുക്കും ഒക്കെ ചെയ്യും അതായത് ഓവർ ചെളി ഉള്ളത് ഒന്നും വെളുക്കില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അലക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്ട് തന്നെയാണ് ഇപ്പം ഒരു ഉപകാരം എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും നടുവേദനയോ കുനിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പിഴിയണം മുക്കി പിഴിയണം അലക്കണം അടിച്ചു അലക്കണം അതായത് ഇപ്പോൾ ഒരു കല്ല് ആവശ്യമുണ്ട് അതിന് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കല്ല് പരതി വന്ന് അത് ഇങ്ങനെ അടുക്കി ഒരു സെറ്റപ്പാക്കിട്ടു വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ സോപ്പ് തേച്ച് ഇങ്ങനെ അലക്കാൻ അതിനിപ്പോൾ ഒരു ഏകദേശം നല്ല സമയം എടുക്കും അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ അലക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു കുറച്ച് തുണി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വൈകുന്നേരം വരേ എന്തായാലും അലക്കേണ്ടി വരും വൈകുനേരം വെരെ വേണ്ട ഒരു കുറച്ച് നേരം ഒക്കെ അലക്കേണ്ടി വരും കുറേ തുണി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണെങ്കിൽ എന്താണെന്നു വച്ചാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഏഴ് കിലോൻ്റെ ആണ് കിലോ കണക്കിനാണ് ഈ വാഷിംഗ് മെഷീൻ തരുന്നത് ഏഴു കിലോ തന്നെയാണ് അപ്പം അതിനകത്ത് നമുക്ക് ഒരു ആവിശ്യത്തിന് ഒരു ഏഴ് കിലോ വരേ ഉള്ള തുണികളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഇടാം എന്നിട്ട് നേരെ വെള്ളം തുറന്നു വിടാം നമ്മുടെ ഡിറ്റർജന്റ് ഇടുക ഡിറ്റർജന്റ് ഇട്ടിട്ട് അത് എന്താ പറയുക ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മൾ മറ്റേ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ കറങ്ങും കറങ്ങി കഴിഞ്ഞാൽ ബാക്കി ഉള്ളതെല്ലാം അത് ചെയ്തോളും പിന്നെ നമ്മൾ അതിനകത്തുതന്നെ നോക്കി നിൽക്കുകയൊന്നും വേണ്ട അതു തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും കാരണം നമ്മൾക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഒക്കെ പോകണമെങ്കിൽ പോകാം അതാണ് ഏറ്റവും ഇതിന്റെ ഗുണം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രയിൻ ചെയ്ത് എടുക്കാം നേരെ കൊണ്ടുപോയി അഴയിലിട്ടാൽമതി വെയിലത്ത് പെട്ടന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും വെള്ളം അതിനകത്ത് നിൽക്കുകയും ഇല്ല പിന്നെ വെള്ളം വേഗം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഉള്ള ചെളി ഒക്കെ അങ്ങ് പൊയ്ക്കോളും കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഡ്രസ്സും നല്ല രീതിയിലൊക്കെ നിൽക്കും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എന്നാൽ എന്താ പറയുക ചെളി എല്ലാം പൊയ്ക്കോളും